ഞാൻ താമസിക്കുന്നത് ഒരു ഗ്രാമപ്രദേശത്താണ് എന്നാൽക്കൂടി ഞങ്ങളുടെ ഗ്രാമപ്രദേശത്തുള്ള ഒരുവിധം എല്ലാ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം മാതാപിതാക്കളും അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പിന്തുണയ്ക്കുന്നുണ്ട് അവർ ഒരിക്കലും തങ്ങളുടെ കുട്ടികളെ ഏത് ബുദ്ധിമുട്ടുകളിലാണെങ്കിൽപ്പോലും സ്കൂളിൽ പഠനം നടത്താൻ അനുവദിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുക്കുകയും അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ചില മാതാപിതാക്കൾ അവർക്ക് പഠിക്കാൻ സഹായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് ആവശ്യമായ രീതിയിലുള്ള ട്യൂഷൻ വരെ ഏർപ്പാടാക്കിക്കൊടുക്കുന്നു കൂലിപ്പണിക്കാരാണ് കൂടുതലും ഈ നാട്ടിലുള്ളത് എങ്കിൽക്കൂടി അവരും അത്യാവശ്യം വിദ്യാഭ്യാസം നേടിയവരാണ് അതുകൊണ്ട് തന്നെ തങ്ങളുടെ കുട്ടികൾ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നേടി അവരേക്കാൾ നല്ല നിലയിൽ വരണമെന്നാണ് ഈ നാട്ടില് കൂടുതൽ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് ചിലയാളുകൾ അവരുടെ കുട്ടികളെ അവരുടെ ജോലിസ്ഥലങ്ങളിൽ വരെ അതായത് ചെറിയ കടകൾ നടത്തുന്നവരാണെങ്കിൽ ആ കടകളിൽ കൊണ്ടുവന്നിരുത്തി വരെ അവർ പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ഗവൺമെൻറ് വിദ്യാഭ്യാസകേന്ദ്രങ്ങളുണ്ട് അവിടെയെല്ലാം കുട്ടികൾക്ക് സൗജന്യമായി പഠനം നടത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഗവൺമെൻറിൻ്റെ ഈ സഹായത്തോടെ പാവപ്പെട്ടവരായ പല മാതാപിതാക്കൾക്കും തങ്ങളുടെ മക്കൾ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നേടണമെന്നുള്ള ആഗ്രഹത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് പണമില്ലെന്നതിൻ്റെ പേരിൽ അവർക്ക് തങ്ങളുടെ കുട്ടികളുടെ പഠനം വേണ്ടെന്നുവെയ്ക്കാൻ വെയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ ഇവിടുത്തെ മാതാപിതാക്കൾ അവരെ പലപ്പോഴും വെക്കേഷൻ ക്ലാസ്സുകൾക്ക് വരെ വിടാറുണ്ട് അതും അവരും വിദ്യാഭ്യാസത്തെ ഒരു രീതിയിൽ മാത്രമല്ല കാണുന്നത് കുട്ടികൾക്ക് ഇന്നത്തെക്കാലത്ത് വെറും വിദ്യാഭ്യാസത്തിനേക്കാൾ അവരുടെ കലാകായിക ശാസ്ത്ര കഴിവുകളെ വികസിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തെയും ഈ നാട്ടിലെ മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അവരെ സ്വന്തം ക്ലാസുകൾക്ക് ശേഷം അവർ പലതരത്തിലുള്ള അവരുടെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനുള്ള തരത്തിലുള്ള വിദ്യാഭ്യാസവും ഈ നാട്ടിലെ ആളുകളും ക്ലബ്ബുകളും അതുപോലെ തന്നെ മറ്റു കോച്ചിങ് സെൻററുകളും ഇതിനെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരുന്നു ഇതിനെയൊക്കെ നല്ല രീതിയിൽ പിന്തുണയ്ക്കുന്നവരാണ് ഈ നാട്ടിലെ മിക്ക മാതാപിതാക്കളും